തേങ്ങ പറിക്കുന്ന യന്ത്രം തെങ്ങിൽ കയറുന്നതാണ് തെങ്ങിൽ കയറി തേങ്ങ പറിക്കുന്നത് ആണ് തെങ്ങ് തെങ്ങ് കയറുന്ന യന്ത്രം ട്രാക്ടർ നെൽകൃഷിക്കായിട്ട് നിലം ഒരുക്കുന്ന വയൽ ഉഴുതുമറിക്കുന്ന യന്ത്രമാണ് ട്രാക്ടറ് കൊയ്ത്ത് എന്ത്രം നെല്ല് വയലിൽ ഇറങ്ങിച്ചെന്ന് നെല്ല് കൊയ്ത് അത് ചാക്കിനകത്ത് നെല്ലാക്കി തരുന്ന യന്ത്രമാണ് കൊയ്ത്ത് എന്ത്രം പിന്നെ പമ്പ് പമ്പ് നമ്മുടെ കൃഷി ആവശ്യത്തിന് കളനാശിനികൾ കളനാശിനിക്ക് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പമ്പ് കളനാശിനികളിന് മരുന്നടിക്കാനും എല്ലാം വാഴകൃഷിക്കും നെൽകൃഷിക്കും എല്ലാത്തിനും പമ്പ് ഉപയോഗിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് പമ്പ് നമുക്ക് ആവശ്യം ഉള്ളൊരു സാധനമാണ്